നമുക്ക് അറിയാം നമുക്ക് ഇപ്പോൾ ഓരോ ഉത്തരവാദിത്ത്വങ്ങളും താല്പര്യങ്ങളും നമ്മളെ ഏല്പിച്ചേക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൻ്റെ ഇടക്ക് നെയ്തലും തുന്നലും എങ്ങനെ ഒരേ സമയം കൊണ്ടു പോകുന്നു എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നെയ്തൽ ഓരോരുത്തരുടെ ജീവിതമാർഗ്ഗമാണ് ഇത് അവരുടെ ജീവിതമാർഗ്ഗം ഈ നെയ്തൽ ഇത് നെയ്ത് കിട്ടുന്ന സാരി മറ്റ് ഉപകരണം കൊണ്ടും മാത്രമാണ് അവർ ജീവിച്ച് പോകുകയും ഏ അവരുടെ ഒരു ഒരു ദിവസത്തെ കുടുംബം അവിടെ കഴിഞ്ഞു പോകുന്ന തന്നെ ഈ വരുമനത്തിലൂടെയാണ് അതുപോലെ തന്നെ അത് പണ്ടത്തെ വച്ച് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ അന്ന് നെയ്തൽ ഒരുപാട് അന്ന് നെയ്തലായിരുന്നു മുഖ്യം ഇപ്പോൾ അതങ്ങനെ കണ്ട് കിട്ടാനും കാണാനോ അങ്ങനെ ഉള്ള ഒന്നും ഇല്ല അങ്ങനെ കാണാനും അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം തയ്യൽ ഇറങ്ങിയിട്ടുണ്ട് ഒരോരുത്തരുടെ ഓരോ കുടുംബങ്ങളും വിദ്യാഭ്യാസം കുറവുള്ളവരും അധിക മറ്റ് ജോലികളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ തുന്നൽ ചെയ്ത് ഇതൊരു വരുമാനം ആയി ചെയ്യുന്നത് കാണാൻ പറ്റും അവർക്ക് ഒരു സ്ഥിര വരുമാനം ആണ് അറിയാവുന്നവർ അത് പഠിച്ച് സ്വന്തം വരുമാനം സ്വന്തം ആയിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് എല്ലാമാണ് ഈ തുന്നൽ എന്ന് കൊണ്ടവർ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് അറിയാം പല മോഡലുകളിൽ ഉള്ള ഡ്രസ്സുകൾ നമ്മൾ ഇടുന്നത് തയ്ച്ചിടുന്നതും അല്ലേ റെഡിമേഡ് മേടിക്കുന്നതും ഇതൊക്കെ തുന്നി എടുക്കാൻ ഒരു വളരെ അധികം കഷ്ടപ്പാട് അവരുടെ മുന്നിലുണ്ട് ഒരുപാട് കഷ്ടപാടും പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ച് തന്നെയാണ് അവർ ഇത് ഇറങ്ങി ഇത് എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തുന്നുമ്പം നമ്മൾ മേടിക്കുന്ന ഓരോ തുണിയും അത് ഇന്ന സമയത്ത് ഇത്ര നല്ല വൃത്തിക്ക് തയ്ച്ചു തരണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക കഴിവാണ് അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല പഠിച്ച് ആ ഒരു മനസ്സിരുത്തി ക്ഷമ എല്ലാം കൊണ്ടും വേണം ഇത് ചെയ്യാൻ എല്ലാ ഉത്തരവാദിത്വങ്ങളും ആ വീട്ടിലെ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിലെ സ്ത്രീ ആണെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് കുടുംബത്തിലെ എല്ലാ ജോലികളും ബുദ്ധിമുട്ടുകളും എല്ലാം കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഈ ജോലി അവർ ഇഷ്ടപ്പെട്ട് അവർ ഇഷ്ടപ്പെട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് അവർ ഇഷ്ടപെട്ട് ചെയ്യുന്നതാണ് അവരുടെ സമയവും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് മാറ്റിവെച്ചിട്ട് ഇപ്പം മാറ്റിവെച്ചിട്ട് മാറ്റിവെച്ചിട്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം അവർക്ക് അതൊരു എന്നാ പറയ ഒരു അവർക്ക് അതിലൊരു പ്രത്യേക ഒരു അനുഭൂതി ആണ് കിട്ടുന്നത് സന്തോഷം ആണ് കിട്ടുന്നത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ് അത് നിസ്സാരമായി കാണാനോ ഒന്നും പറ്റത്തില്ല പിന്നെ നെയ്തൽ അത് ഒരുപാട് കഷ്ടം പണ്ട് കാലങ്ങളിൽ നെയ്തലായിരുന്നു എല്ലാ മിക്ക് ഇടങ്ങളിലും നമ്മൾ കണ്ടോണ്ടിരുന്നത് ഇപ്പം അത് കാണാൻ പോലും ഇല്ല നെയ്തൽ കൈ കൊണ്ട് ചേട്ട കൊച്ചമ്മമാരും കൊച്ചമ്മമാരൊക്കെ കൈ കൊണ്ടങ്ങനെ ചെയ്തു ചെയ്തു ചെയ്തുണ്ടാക്കുന്ന ഇപ്പോൾ എല്ലാം മെഷിൻ വഴിയായി മാറിയിരിക്കുന്നു തുന്നൽ ആയിരിക്കുന്നു കൊണ്ട് ഇരിക്കുന്നു ഇതിന് സമയം എല്ലാം കണ്ടെത്തി ഏ സമയം കണ്ടെത്തി ഇതിൻ്റെ പ്രയോജനം ഒക്കെ ഓക്കുവാൻ എന്തെങ്കിലും ഒരു ആ ഒരു എന്തെങ്കിലും ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിരുത്തി ചെയ്യുവാണേൽ നമ്മൾ ഇഷ്ടത്തോടെ നമുക്ക് ഒരു നമ്മൾ ഇഷ്ടത്തോടെയും അങ്ങനെ എൻ്റെ ഒരു എൻ്റെ ഒരു ഫാഷനായിട്ട് കണ്ട് നമ്മുടെ സന്തോഷം അതിലൂടെ കണ്ട് ക്ഷമയിലൂടെ ചെയ്താലേ ഏറ്റവും നല്ല ജോലി അവർക്ക് അതായിരിക്കും ഇതിലൂടെ ആയിരിക്കും അവരക്കെ ഇത് ജീവിക്കേം എല്ലാം ചെയ്യുന്നത്